ഹലോ പാലാ ബുക്കിംഗ് ഏജന്സി അല്ലേ ഞാൻ രേഷ്മയാണ് ഞാനവിടെ ഒരു ഡ്രൈവറ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും സമയമായിട്ടും ഡ്രൈവര് എത്തിയിട്ടില്ല ഞാന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്തരയ്ക്ക് പത്തരയ്ക്ക് വേണ്ടിട്ടായിരുന്നു പക്ഷേ ഇപ്പം പത്തര കഴിഞ്ഞ് പത്തേ മുക്കാലായി ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത്രയും സമയമായിട്ടും ഡ്രൈവര് എത്തിയിട്ടില്ലല്ലോ പക്ഷേ ഞാൻ എനിക്ക് ഇനി ക്യാബ് ആവശ്യമില്ല കാരണം ടെന് തേര്ട്ടിക്ക് കറക്ട് എത്തുവാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വിചാരിച്ച സ്ഥലത്ത് കറക്ട് ടൈമിന് എത്തും ഇതിപ്പെനിക്ക് എന്തായാലുമിപ്പയെത്തി ഇപ്പം നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും അവർ എത്താന് കുറച്ച് കൂടി ടൈം എടുക്കും അപ്പം ഞാന് വിചാരിച്ച ടൈമിന് എനിക്കവിടെ എത്തിച്ചേരാന് പറ്റില്ല അപ്പം പിന്നെ ഇനി നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുല്ല ഓക്കേ ഓക്കേ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കെന്തായാലും ഞാന് ബുക്ക് ചെയ്തിട്ടുള്ള പൈസ എനിക്ക് തിരിച്ച് തരണം എന്തായാലും ഇപ്പമുള്ള ക്യാബ് ഞാന് റദ്ദാക്കാണ് എനിക്ക് ഇനിയിപ്പം ക്യാബിന്റെ ആവശ്യമില്ല കറക്ട് ടൈമിന് അല്ലല്ലോ എത്തിയെ കറക്ട് ടൈമിന് എത്താന് സാധച്ചിട്ടില്ലല്ലോ